സാങ്കേതികവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് മാറേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ സാങ്കേതികവിദ്യയൊക്കെ നല്ല രീതിക്കന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹത്തിൽ ഉള്ളവരൊക്കെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന്റെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും ദോഷങ്ങൾ ഉണ്ടെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ സാങ്കേതികവിദ്യയിലിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നതുകൊണ്ട് ബസ്സ് ബസ്സ് ട്രെയിന് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്യാമ്പ് ബുക്ക് ചെയ്യാനായാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ എന്താ പറയാ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നോണ്ട് സാധാരണക്കാർക്ക് ആയാലും അത്യാവശ്യം ഉയർന്ന ആൾക്കാരായാലും നല്ല ആൾക്കാർക്കൊക്കെയാണെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ജോബൊക്കെയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് എല്ലാ കാര്യവും മനസ്സിലാക്കാൻ പറ്റും എന്നാൽ അത് സാധാരണക്കാരനിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ബോധമൊന്നുവില്ല അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുമ്പോൾ എന്താ പറയാ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും ഇത് ചെയ്യുന്നതിനനുസരിച്ച് പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അവർക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല ഇത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്